രാജ്യത്ത് ദിനം പ്രതി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഏറി വരികയാണ് അതോടൊപ്പം പുതിയ പുതിയ രോഗങ്ങളും വരുന്നുണ്ട് നമ്മളുടെ രാജ്യത്ത് നിരവധിയായ പുതിയ ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട് ആശുപത്രികൾ വരുന്നുണ്ട് ഓരോ മെഡിക്കൽ സേവനങ്ങളിലും വരുമ്പോൾ ഒന്നിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേ വരാറുള്ളൂ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ മിഷിനറീസും കൊണ്ടൊക്കെ ഉള്ള മെച്ചപ്പെട്ട ഹോസ്പിറ്റലുകളാണ് വരുന്നത് ഒന്നിന് ഒരു ഹോസ്പിറ്റനേക്കാളും നന്നായിട്ടേ അടുത്ത ഹോസ്പിറ്റലുകളിൽ വരാറുള്ളൂ കാരണം രോഗങ്ങൾ പെരുകി വരികയാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാകുന്ന രോഗികളിൽ എണ്ണവും കൂടി വരികയാണ് ശരിയാണ് രോഗികൾക്ക് വേണ്ടത് നല്ല ചികിത്സ തന്നെയാണ് ആശുപത്രി അധികാരികൾ അതിനെ അതിന് വേണ്ടത്ര അവർ വേണ്ടത്ര നിലവാരം കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും പുതിയ പുതിയ സൗകര്യങ്ങൾ വരുമ്പോൾ അതിനോടൊത്ത് തന്നെ അതിൻ്റെ പൈസയും കൂടുകയാണ് രോഗികൾക്ക് അവര് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള തുകയാണ് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരുന്നത് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി കഴിഞ്ഞാൽ ഒന്ന് മൂന്നര ലക്ഷം രൂപ ഒക്കെയാണ് ഹോസ്പിറ്റലില് ചിലവാകുന്നത് ഇത് എല്ലാ മനുഷ്യരെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല കാരണം എല്ലാവർക്കും ജീവൻ ഒന്നേയുള്ളൂ ഈ ജീവനെന്നെ പറ്റി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്നു കഴിയുമ്പോൾ കൊടുക്കാൻ പൈസ എല്ലാവരുടേലും കാണണം എന്നില്ല കാരണം എല്ലാവരും ഒരേ രീതിയിൽ അല്ല ജീവിക്കുന്നത് പാവപ്പെട്ടനാണെങ്കിലും സമ്പന്നനാണെങ്കിലും രോഗവും അസുഖവും അപകടവും എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ ഇതിനുള്ള മരുന്നും മരുന്ന് വാങ്ങാനുള്ള പൈസ പാവപ്പെട്ടവന്റെ കാണണം എന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനെ വലിയ ഒരു വിഷമായി തന്നെ കാണണം സർക്കാർ അവരുടെ സർക്കാരിൻ്റെ തന്നെ ഹോസ്പിറ്റലിൽ പണിയേണ്ടതാണ് അതും നല്ല മെച്ചപ്പെട്ട രീതി മെച്ചപ്പെട്ട പുതിയ പുതിയ ആധുനിക രീതിയിൽ തന്നെയുള്ള ഹോസ്പിറ്റലുകൾ തന്നെ വേണ്ടതാണ് അതും തുച്ഛമായ നേർക്കരുത്ത് തുച്ഛമായ പൈസയില് തന്നെ പാവപ്പെട്ട പാവപ്പെട്ടവരും ഒരുപാട് പൈസ ആകാണ്ടും അതോടൊപ്പം നല്ല രീതിയിൽ നല്ല ഒരു മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാനും നല്ല രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാൻ കഴിയേണ്ടതാണ് എന്നിരുന്നാലും എൻ്റെ രാജ്യത്ത് സർക്കാർ ഇതിന് വലിയ ഒരു വിഷയമായി തന്നെയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ കുറേയേറെ ഹോസ്പിറ്റലുകൾ ആശുപത്രികൾ പണിതിട്ടുണ്ട് അതും നല്ല മെച്ചപ്പെട്ട ചികിത്സകൾ നൽകുന്ന രീതിയിൽ തന്നെ അത് ഇപ്പോൾ സിറ്റികളിലോ അതായത് അഥവാ ഗ്രാമീണ മേഖകളിലോ എന്നു വേർതിരിവ് ഇല്ല ഗ്രാമീണ മേഖലെ മേഖലകളിൽ ആണെങ്കിലും നല്ല ഹോസ്പിറ്റലുകൾ വലിയ ഹോസ്പിറ്റലുകൾ പണിതു അവിടെ നല്ല ഡോക്ടേർസിനെ കൊണ്ടുപോയി നിർത്തി അവർക്ക് ഡോക്ടേസിനോടുള്ള പൈസ അത് ശമ്പളം സർക്കാരിൻ്റെ കൈയിൽ നിന്ന് എടുത്ത് തന്നെ എൻ്റെ നാട്ടിലെ സർക്കാർ നോക്കിയിട്ടുണ്ട് പാവപ്പെട്ടവനും സമ്പന്നനും എന്നുള്ള വേർതിരിവ് സർക്കാർ ആരോഗ്യ മേഖലകളിൽ കാണിച്ചിട്ടില്ല അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് പിന്നെ കോവിഡ് മഹാമാരി വന്നപ്പോഴും ഹോസ്പിറ്റലിൽ എല്ലാവർക്കും പോവാൻ കഴിയുക ഇല്ല എന്ന സമയത്താണെങ്കിലും സർക്കാർ വളരെ ഏറെ വലിയ വളരെയേറെ സഹായമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കാരണം വീട്ടിൽ തന്നെ ആയിരിക്കും പലരും അന്ന് അന്നൊക്കെ കഴിഞ്ഞിരുന്നത് ഒരു അസുഖം വന്നാലോ പനി വന്നാലോ ഹോസ്പിറ്റലിൽ പോവാൻ തന്നെ എല്ലാവർക്കും പേടിയായിരുന്നു അതേ സമയത്ത് തന്നെ സർക്കാർ സർക്കാറിൻ്റെ കൈയിൽ നിന്ന് പൈസയിട്ട് ഓരോ ദിവസവും ആരോഗ്യ വിദഗ്ധരെ എല്ലാ വീട്ടിലേക്ക് അയച്ചു കൊണ്ടിരുന്നു അവരുടെ എല്ലാ വീട്ടിലും എല്ലാവരുടേയും ആരോഗ്യം ചെക്ക് ചെയ്യാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നവർക്ക് അവരുടെ അവരുടെ ആരോഗ്യപരമായും അതോടൊപ്പം മാനസികപരമായി അവരുടെ കൂടെ തന്നെ നിന്നു ഒരോ ഡോക്ടർമാരും അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് കാരണം ഡോക്ടേർസ് ആണെങ്കിലും അവർക്കും ജീവനില് പേടി ഉണ്ട് എന്നിരുന്നാലും ഡോക്ടേഴ്സ് അങ്ങനെ മാറി നിന്നിട്ടില്ല ഒരു കൊറോണയുള്ള പേഷ്യൻ്റ് ആണ് അങ്ങ് വേര്തിരിവ് കാണിച്ചിട്ടില്ല അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ഡോക്ടർമാരുടെ ഡോക്ടർമാർക്ക് ആണെങ്കിലും രോഗികളെ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് പനി വരാം അതൊന്നും അവർ കണക്ക് കൂട്ടിയിട്ടില്ല